ഒരു കണക്കിന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ് വേറൊന്നും കൊണ്ടല്ല ഇന്നത്തെക്കാലതെന്ന് പറയുമ്പം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അതായത് ഇപ്പം ഞങ്ങളുടെ കാലം തലമുറയിലാണേ ഇല്ലേൽ ഞങ്ങളുടെ തൊട്ട് മുമ്പത്തെ തലമുറയിലാണേലും ഇപ്പം പുറത്തൊക്കെ പോയിട്ട് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ എഴുതാൻ അറിയില്ലാത്ത ഇംഗ്ലീഷിൽ എഴുതാൻ അറീല്ലാത്തോണ്ട് ഒരുപാട് അവസരങ്ങൾ വേണ്ടാന്ന് വെച്ചേരം അല്ലേൽ ഒരുപാട് ഇങ്ങനത്തെ ഒരു അവസരങ്ങളിൽ നിന്ന് ഒഴിവായി പോകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ പ്രാദേശിക ഭാഷയിൽത്തന്നെ രേഖകൾ ഉണ്ടാവുന്നത് എന്നൊരു നല്ല കാര്യം തന്നെ ആണ് പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖലകളിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നൊരു കാര്യംന്ന് പറയുന്നത് കൂടുതൽ ബാങ്കിംഗ് തന്നെയാണ് ബാങ്കിൽ പോവുന്നതാണ് പോയി പൈസ അടയ്ക്കാനും പൈസ ഇടാനും അവരുടേതായ സേവിംഗ്സ് എല്ലാം സൂക്ഷിക്കാനും ഈ ബാങ്കിംഗിലെ ബാങ്കിലേക്കാണ് എല്ലാവരും പോവുന്നത് അപ്പം ഈ ബാങ്കിലേക്ക് പോവുമ്പം നമുക്ക് അവടെ കുറെ ഇത് കുറെ രീതികളുണ്ട് അതായത് ഫോമ് ഫില്ല് ചെയ്ത് കൊടുക്കണം പക്ഷെ അതെല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്യേണ്ടത് അപ്പം ഇതൊന്നും അറിയാത്ത ഒരുപാട് ഇപ്പം പറയാണെങ്കിൽ ആദിവാസികൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒന്നും അറിയില്ല അപ്പം അവർ നമ്മളെ തൊട്ട് തലമുറയിലുള്ള ആദിവാസികൾക്കൊന്ന് മാത്രം അല്ല എല്ലാർക്കും തന്നെ ഇതൊന്നും ഫില്ല് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേര് എനിക്ക് അറീല്ല അതോണ്ട് ഞാൻ പോവൂല്ലാന്ന് പറഞ്ഞ് മടിച്ച് വീട്ടിൽ ഇരിക്കുന്നവരും ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്ക് തീർത്തും ഒരു ഒരു സഹായം തന്നെ ആയിരിക്കും എന്താന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടന്നേ എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നല്ല കയിഞ്ഞാൽ എന്താ അങ്ങനെ ഒക്കെ വേണംന്ന് തോന്നീട്ടുള്ളൊരു കാര്യം തന്നെയാണ്